മൃഗങ്ങള് എൻ്റെ വീട്ടില് ഒരു നായ ഉണ്ട് അവൻ്റെ പേര് ചാർളീ എന്നാണ് അവനോട് ഞങ്ങള് കൂട്ടിൽ കയറാൻ പറഞ്ഞാൽ കൂട്ടിൽ കയറുകയും പുറത്തേക്ക് ഇറങ്ങാൻ പറഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങുകയും ഭക്ഷണം കൊടുക്കുമ്പോൾ രാവില ചായ കൊടുക്കും പിന്നെ ഉച്ചയ്ക്ക് ചോറ് രാത്രിയും ചോറ് പിന്നെ എന്തേലും സ്നേക്സ് സാധനങ്ങൾ ഞങ്ങള് കഴിക്കുമ്പം അതൊക്കെ കൊടുക്കും പിന്നെ രാവിലെ അവനെ മൂത്രമൊഴിക്കാൻ വിടുകയും കക്കൂസ് എന്താ അപ്പി ഇടാൻ വിടുകയും ഒക്കെ ചെയ്യുമ്പോൾ അവൻ അത് ചെയ്ത് കഴിഞ്ഞാല് കൂട്ടില് പോയി നേരെ കൂട്ടിൽ പോയി കയറുകയും ചെയ്യും പിന്നെ അതേപോലെ തന്നെ രാവിലെ രാത്രിയും ആണ് അവൻ മൂത്രമൊഴിക്കെയും തൂറുകയും ഒക്കെ ചെയ്യുക രാത്രി കുറച്ച് ഇറങ്ങി അതിലൂടെയും ഇതിലൂടെയും നടക്കുകയും ഞങ്ങള് വിളിക്കുമ്പോൾ ചാർളീ എന്ന് വിളിക്കുമ്പോൾത്തേക്ക് ഇങ്ങ് പോരുകയും ഞങ്ങളെ എവിടെ കണ്ടാലും ഓന് കുരച്ചു ഞങ്ങളുടെ അടുത്തേക്ക് പാഞ്ഞ് വരും ഊട്ട് ഊരി ഇട്ടതാണെങ്കില് പിന്നെ ഓന് വേണ്ട ഓനെ കുളിപ്പിക്കയും കൂട് ദിവസവും വൃത്തി ആക്കുകയും ഇത് ഒക്കെയാണ് ഞങ്ങൾ ചെയ്യുന്നത്